നമ്മുടെ പ്രാദേശിക സംസ്ക്കാരവും പാരമ്പര്യവും ഉയർത്തിക്കാട്ടുന്ന ഒരുപാട് വിനോദ പരിപാടികളുണ്ട് അതിൽ ഭാഗമാകാൻ എനിക്ക് വളരെ ഇഷ്ടമാണ് കാരണം ഇന്നത്തെ പുതു തലമുറ മറന്നു പോയിരിക്കുന്ന ഒന്നാണ് അതെന്ന് പറയുന്നത് ഒരുപാട് വിനോദം പകർന്ന് കിട്ടുന്ന അല്ലെങ്കിൽ മനസ്സിനൊരു റിലാക്സേഷൻ ലഭിക്കുന്നതിനൊക്കെ ഇത് വളരെയധികം സഹായിക്കുന്നുണ്ട് കൊച്ചുകുട്ടികളൊക്കെ ടീവിയുടേയും ഫോണിൻ്റേയും ഒക്കെ ഇടയിലായിപ്പോകുമ്പോൾ ഇങ്ങനെയുള്ള കലാ വിനോദ കലാ വിനോദ പരിപാടികളൊക്കെ മുന്നോട്ട് വരികയും അതിലേക്ക് കുഞ്ഞുങ്ങളെ നയിക്കുകയും ചെയ്യുന്നത് ഒരു പരിധിവരെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ സുരക്ഷയ്ക്ക് നല്ലതാണ് അപ്പോൾ എനിക്ക് ആ അതിൻ്റെ ആ ഒരു പ്രാദേശിക സംസ്ക്കാരവും പാരമ്പര്യവും ഒക്കെ പാരമ്പര്യം ഉയർത്തിക്കാട്ടുന്ന വിനോദ പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്നതിന് അല്ലെങ്കിൽ അതിനൊരു ഭാഗമാകാൻ എനിക്ക് വളരെയധികം താൽപര്യമുണ്ട്